ശരീര ഭാരം കുറക്കാൻ ശ്രമിക്കുന്നവർക്ക് സാധാരണ നമ്മുടെ നാട്ടും പ്രദേശതൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ തേൻ കുടിക്കുക ഈ ശുദ്ധമായ തേൻ അത് ചെറുതേനാണെങ്കിലും വൻതേനാണെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അത് എന്താണ് കൃത്യമായിട്ടുള്ളത് എന്താണ് ഒരു ഇടവേളകളിൽ അല്ലെങ്കിൽ കൃത്യമായൊരു പിന്നെ ശീലത്തോടെ തേൻ കഴിക്കുക എന്നുള്ളത് ശരീര ഭാരം കുറക്കാൻ ശ്രമിക്കുന്നവര് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ എന്താണ് അധികം കൊഴുപ്പടങ്ങിയ ഭക്ഷണ രീതികൾ ഒഴിവാക്കികൊണ്ടുള്ള ഒരു എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ശരീര ഭാരം കുറയ്ക്കുന്നവരും നമ്മളുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരിതാണ് പിന്നെ മത്സ്യ മാംസാദികളൊക്കെ അധികം ഒഴിവാക്കിയിട്ട് പച്ചക്കറികള് നമ്മളുടെ നാട്ടില് കിട്ടുന്ന പിന്നെ എന്താണ് ജൈവ പരമായി കൃഷി ചെയ്തുണ്ടാക്കുന്ന കിഴങ്ങു വർഗ്ഗങ്ങൾ അങ്ങനത്തെ അതൊക്കെ എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുക അതൊക്കെ ശരീര ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെ എന്താണ് ആളുകൾ ചെയുന്നത്